കായിക രംഗത്ത് പ്രധാനമായി ഉദ്ദേശങ്ങൾ രണ്ട് എണ്ണമാണ് ഒന്ന് കുട്ടികളുടെ അല്ലെങ്കിൽ ആളുകളുടെ കായിക ബലം വർദ്ധിക്കാൻ രണ്ട് ലിംഗസമത്വം കൊണ്ടുവരാനായിട്ട് നമുക്ക് അറിയാം സ്കൂളുകളിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഇപ്പോൾ കായികം വളരെ അധികം പ്രാധാന്യം ഉള്ളൊരു ഒരു മേഖല ഒരു ഫീൽഡാണ് കാരണം ഈ പഠനത്തോടൊപ്പം തന്നെ പിള്ളേരുടെ ഫിസിക്കൽ അല്ലെങ്കിൽ ശാരീരിക ആരോഗ്യം വളരെ അധികം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ സ് ഇപ്പോൾ സ്കൂളുകളിൽ അതുപോലെ തന്നെ എല്ലായിടത്തും കായികത്തിൻ്റെ വില വളരെ അധികം അല്ലെങ്കിൽ കായികത്തിന് വളരെ അധികം മൂല്യമുണ്ട് ഇനി ഇതിൽ സ്ത്രീകളുടെ പങ്കാളിത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ പണ്ട് ഒരു കാലത്ത് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്രയും ഒരു കായിക മേഖലയോട്ടൊരു എൻ എൻ ഒരു ആക്സസ് ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ല ഇപ്പോൾ ലിംഗസമത്വം വളരെ അധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലമാണ് പുരുഷന്മാർക്ക് ഉള്ളതിനെ പോലെ ഈ പുരുഷന്മാർക്ക് കിട്ടുന്ന പോലെ തന്നെ സ്ത്രീകൾക്കും കായിക മേഖല മേഖലകൾ അവസരങ്ങൾ കിട്ടുന്നു